ഒരു പിഞ്ചു കുട്ടി എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞിരുന്നാൽ ആ കുട്ടി അതു പോലെ തന്നെ ചിത്രം വരയ്ക്കാൻ അറിയാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്ര വലിയ റിസ്ക് എടുത്തിട്ടാണെങ്കിലും വരച്ചു നോക്കുക തെറ്റിക്കോട്ടെ എന്നാലും നമ്മൾ ശ്രമിക്കണം പിന്നതു പോലെ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം

ഒരു വ ഒരാർട്ടിസ്റ്റാകുന്ന വര ഒരാർട്ടിസ്റ്റാകണം എന്നൊരു ഡ്രീം നമ്മൾക്കുണ്ടെങ്കിൽ എത്ര വലിയ കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ നേടിയെടുക്കും അതല്ലേ ഡ്രീം ഡ്രീമുള്ളവന് എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുക അത് നേടിയെടുത്താലല്ലേ അവൻ്റെ ഉറക്കം റെഡിയാകില്ല ശരിയാകില്ല തന്നെ എനിക്ക് വരയ്ക്കാനറിയില്ല വരയ്ക്കാൻ കഴിവില്ല എന്നു പറഞ്ഞിരുന്നിട്ട് നമുക്കൊന്നും ഉണ്ടാകില്ല നമുക്ക് ന നമുക്ക് നമ്മളുടേതായത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാഗ്രഹിച്ചത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതല്ല സന്തോഷം നാളൊരിക്കൽ അല്ലെങ്കിൽ പിന്നൊരിക്കൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല എനിക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തുവെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഡ്രീം ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാകില്ല ചെയ്യാൻ അല്ലാതെ നമുക്ക് നമ്മളുടെ ആഗ്രഹം നമ്മൾ നിറവേറ്റി നമ്മൾ ഇതിലൂടെ കടന്നു പോയ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഡ്രീം ഇതായിരുന്നു ഞാനത് നിറവേറ്റി എനിക്കിപ്പം അതിൽ സന്തോഷമുണ്ട് അല്ലെങ്കിൽ നാളൊരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ അപ്പം നമുക്ക് നമുക്ക് ഡ്രീം അതാണെന്നു വെച്ചാൽ നമുക്ക് വരയ്ക്കാൻ അറിയില്ല എന്നു പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അതു പോലെ തന്നെ നമുക്ക് ഒരു വര വരക്കാനറിയില്ലെങ്കിലും വരച്ച് വരച്ച് അത് പ പഠിക്കും എത്ര വലിയ കഷ്ടപ്പാടാന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം ഇപ്പം എത്ര നമ്മളുടെ ഡ്രീമിനു വേണ്ടി നമ്മളുടെ ചിലവുകൾ എത്ര ആയിക്കോട്ടെ നേടിയെടുത്ത് കിട്ടുമ്പം സന്തോഷമുണ്ടല്ലോ അപ്പം അതെല്ലാം നമ്മൾ മറന്നു പോകും അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഡ്രിം എന്നു പറഞ്ഞത് ആഗ്രഹം നമുക്ക് വരക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ വരച്ചിട്ടൊന്നും റെഡിയാകുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിലും എങ്ങനെയായാലും നമ്മൾ ഒരു വര രണ്ട് വര മൂന്ന് വരക്ക് നമുക്ക് റെഡിയാകുമല്ലോ തീരെ വരക്കാത്തൊരാണാന്നുണ്ടെങ്കിൽ കുറേ ശ്രമിച്ചാൽ നമുക്കതിനുള്ള ആനുകൂല്യം കാര്യങ്ങളും കിട്ടുകയുള്ളൂ പിന്നെ എല്ലാവർക്കുമുള്ള ആഗ്രഹങ്ങളാണതൊക്കെ നമ്മൾ ഫോട്ടോ കാണുമ്പോൾ വരക്കണം അതു പോലെ ഒരു പിക്ക് കണ്ടാൽ അതു പോലെ വരക്കണം ഒക്കെ ആഗ്രഹങ്ങളാണ് പലവർക്കും പക്ഷെ പ്രാവർത്തികം ആക്കാറില്ലാരും

നമ്മളുടെ ആഗ്രഹങ്ങൾ വേറെ നമ്മളൊന്നും ചെയ്യാതെ മടിച്ചിരുന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല നമ്മൾ നാളെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് ഞാൻ തോറ്റില്ലല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം നമ്മള്ളുടെ ആഗ്രഹം എന്താണോ അതു നമ്മൾ നിറവേറ്റിയിരിക്കണം അതു പോലെ ചിത്രം വരയ്ക്കാൻ നമുക്കറിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് വരച്ചിരിക്കണം എങ്ങനെയെങ്കിലും വരച്ച് കാണിച്ചു കൊടുക്കണം